ആ ഹലോ ചേട്ടാ തേ തേങ്ങ കിടപ്പുണ്ടോ ചേട്ടാ ആ എനിക്ക് ഒരു പത്ത് അറുന്നൂറ് തേങ്ങ വേണമായിരുന്നു ആ ആ ഇതിപ്പോൾ എങ്ങനെയാണ് ചേട്ടാ വില ആ

ആ ആ

ആ മുപ്പത്തി രണ്ട് അല്ലേ കിലോ കുറയ്ക്കാൻ പറ്റുമോ ചേട്ടാ ഒരു ശകലം ഒന്നു കുറയ്ക്കാൻ പറ്റുമോ ഞാൻ ഒരു അറുന്നൂറ് എടുക്കാം ഞാൻ അറുന്നൂറ് എണ്ണം എടുക്കാം ആ മ് ആ അറുന്നൂറ് എണ്ണം എടുക്കാം ഇന്ന്

ഞാൻ പിന്നെ ഞാൻ അങ്ങനെ ആണെങ്കിൽ വൈകുന്നേരം വന്നേക്കാം ഒരു മുപ്പതിൽ നിർത്തുമോ മുപ്പത് മുപ്പത് മു പ്പത് നിർത്തുവാണെങ്കിൽ ഞാൻ ഒരു ശകലം അറുന്നൂറിൽ നിന്ന് ഒരു ഇച്ചിരി അങ്ങോട്ട് വേണെൽ കൂട്ടി എടുക്കാം എന്നീട്ടേ ആ ആ ആ വരാം വരാം ആ വൈക് വൈകുന്നേരം വരാവേ ആ ആ ആ ആ സ്ഥലം അറിയാം സ്ഥലം അറിയാം ആ ആ ആ എന്നാൽ ശരി ചേട്ടാ ഞാൻ നാലു മണിയാകുമ്പോൾ തന്നെ എത്തിയേക്കാമേ ശരി ചേട്ടാ ശരി ചേട്ടാ ആ